നിരവധി ഫോട്ടോഗ്രാഫർമാരുടെ അക്കൗണ്ടുകൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കാരണം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട് പൊതുവെ ഫോട്ടോ എടുക്കാനും ആ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതലറിയാനും വളരെയധികം താൽപര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുതന്നെ അതിനു കിട്ടുന്ന എല്ലാ അവസരങ്ങളും നല്ല രീതിയിൽ തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമത്തിൽ നമുക്ക് നിരവധി ഫോട്ടോഗ്രാഫർമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവ ഫോളോ ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാക്സ് പരമാവധി ഉപയോഗപ്പെടുത്താനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഏറ്റവും അധികം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നത് എങ്ങനെ നല്ല രീതിയിൽ ഫോട്ടോകൾ പകർത്താം ആ ചിത്രങ്ങളെങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പകർത്താമെന്നത് പല ഫോട്ടോഗ്രാഫർമാരുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കതിനോടൊരു താല്പര്യമുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ അക്കൗണ്ടുകളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ അക്കൗണ്ടുകൾ വഴി നമുക്ക് ഒരുപാട് അധികം ഈ മേഖലയിൽ അറിവ് വർദ്ധിപ്പിക്കാൻ വളരേയധികം സഹായം സഹായകമാണ് ഈ ഫോട്ടോഗ്രാഫർമാരുടെ അക്കൗണ്ടുകളിൽ അവർ പല രീതിയിൽ പല സ്ഥലത്തുനിന്ന് ചിത്രീകരിച്ച പല സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എത്രത്തോളം കഷ്ടപ്പാട് അതിന് പിന്നിലുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര മനോഹരമായിട്ട് ചിത്രീകരണങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ക്യാമറ ഏതു ഫ്രെയിമിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം പൊസിഷനിങ് എങ്ങനെ ചെയ്യണം ലൈറ്റിംഗ് എഫക്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്ന നിരവധി ഫോട്ടോഗ്രാഫർമാർ നമുക്ക് ഇന്ന് സമൂഹ മാധ്യമത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി സ്കില്ല് വളർത്താൻ പറ്റും ഈ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് അധികം ഫോട്ടോവൊക്കെ ഫോട്ടോഗ്രാഫർമാരുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ക്യാമറ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഫോട്ടോ എടുക്കണതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ക്യാമറ കൃത്യമായി കൈകാര്യം ചെയ്യാനും അതിൻ്റെ ഫ്രെയിമുകൾ വൃത്തിയാക്കി സൂക്ഷിക്കാനും അതിൻ്റെ അകത്തുള്ള ഡിസ്ക്കിൽ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുമൊക്കെ കൃത്യമായി എങ്ങനെ ചെയ്യണം അത് എങ്ങനെ സൂക്ഷിക്കണം വിവരങ്ങൾ എങ്ങനെ പകർത്തണം അതിനു ശേഷം അതെങ്ങനെ സ്റ്റോർ ചെയ്യാം അതെങ്ങനെ എന്നും സുരക്ഷിതമായിട്ട് വെക്കാം ക്ലാരിറ്റി കുറവൊന്നും വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നു തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഈ അക്കൗണ്ടർമാർ സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കു വെക്കുന്നുണ്ട് അത് ഈ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചെടുത്തോളം ആ അത്തരത്തിലുള്ള ആളുകൾക്ക് അത് വളരെയധികം പ്രചോദനകരമാണ് അവർക്ക് പുതിയ പുതിയ അറിവുകൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ പൊതുവേ ഫോട്ടോ ഒരു ഫോണിൽ ആണെങ്കിൽപ്പോലും ഇങ്ങനെ ക്ലാസിക് രീതിയിൽ ക്യാമറയെ കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ ഒരു ഫോണിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം അത് എങ്ങനെ ചിത്രീകരിക്കാം അതെങ്ങനെ എഡിറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്ന വഴി ഫോട്ടോഗ്രാഫിക്ക് സ്കിൽ വളരെയധികം മെച്ചപ്പെടുത്താനും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഇമ്പ്രൂമെൻ്റ് നമ്മുടെ ഫോട്ടോഗ്രഫിയിൽ വളർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് അധികം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താനും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവാനും ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുവഴി എനിക്ക് സാധിക്കുന്നുണ്ട്